ഞാൻ നൃത്തത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നല്ല ഡെപ്പാംകുത്ത് പാട്ടുകളാണ് അത് മലയാളം പാട്ട് കേട്ടോ മലയാളം പാട്ടാണ് കൂടുതലായിട്ടും ഞാൻ നൃത്തത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നല്ല അടിച്ചുപൊളി പാട്ട് പ്രത്യേകിച്ച് ലാലേട്ടന്റെ പാട്ടുകൾ നരസിംഹത്തിലെ പാട്ട് നരനിലെ പാട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ആ പാട്ടു വച്ച് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എനർജി കിട്ടും അടിപൊളിയാണ് ഇപ്പോഴുള്ള തമിഴ് പാട്ടിനും പാട്ടിനെക്കാളും ഹിന്ദി പാട്ടിനേക്കാളൊക്കെ ഒരു കൂടുതൽ താല്പര്യം മലയാളം പാട്ടു തന്നെയാണ് മലയാളത്തിലെ വിഷമിക്കുന്ന പാട്ടുകളൊന്നുമല്ല കേട്ടോ ഇതേപോലെ നല്ല ഡെപ്പാംകുത്ത് പാട്ടുകൾ പിന്നെ നല്ല റൊമാന്റിക് സോങ്ങുകൾ അതായത് കരി മിഴി കുരുവിയെ സോങ്ങ് ഒക്കെയില്ലേ അതൊക്ക അത് ആ ആ പാട്ടൊക്കെ വച്ച് ഡാൻസ് കളിക്കാൻ ഒരു പ്രത്യേക രസമാണ് എല്ലാവർക്കും ചിലപ്പോൾ പറയും ആ പാട്ടിനു ഡാൻസ് കളിക്കാത്ത ആൾക്കാരായിരിക്കും ഇപ്പോഴത്തെ പുതിയൊരു ഇതിൽ അങ്ങനൊക്കെ ഡാൻസ് കളിക്കും പക്ഷേ സാധാരണ വച്ചാൽ ആ അതൊരു ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടാണൊ അങ്ങനെയൊക്കെ ചോദിക്കണ ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയൊക്കെയാണ് ഡാൻസ് കളിക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ അതുപറഞ്ഞപോലെ വിഷമുള്ള പാട്ടുകളും പാട്ടുകൾക്ക് ഡാൻസ് കളിക്കാനും ഇഷ്ടാണ് കേട്ടോ അതു നമ്മളെ മുഖത്ത് എന്താ പറയുക എക്സ്പ്രെഷൻ ഒക്കെയിട്ട് അതും അതിലും അതും തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ കൂടുതലായിട്ട് മോഹൻലാലിന്റെ പാട്ടുകൾ ദിലീപിന്റെ പാട്ടുകൾ കല്യാണരാമനിലെ പാട്ട് ദിലീപിന്റെയൊക്കെ സിനിമയിലെ പാട്ടൊക്കെ ഭയങ്കര രസമാണ് മലയാളം എനിക്ക് തമിഴിനെക്കാളും ഹിന്ദിയിനെക്കാളൊക്കെ കൂടുതൽ കുറച്ചുംകൂടി എനർജി കിട്ടും അതുകൊണ്ട് അത്തരം പാട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്